ഹലോ ഇത് പാസ്പോർട്ട് ഓഫീസ് അല്ലേ ഞാൻ വിളിച്ചതേ എൻ്റെ പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്ത് പുതുക്കേണ്ടതുണ്ടായിരുന്നു കാരണം നിലവിൽ എൻ്റെ ജോലി സ്ഥലം ഒന്നും മാറിയായിരുന്നു അപ്പം എൻ്റെ അഡ്രസ്സിൽ ഒരു ചേഞ്ച് വരുത്തിയായിരുന്നു ഞാൻ അപ്പം അതുകൊണ്ട് ഈ ഇത് ഈ പാസ്പോർട്ടിൽ ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് വരുത്തണമായിരുന്നു അപ്പം ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടത് നേരിട്ട് പോയി പാസ്പോർട്ട് ഓഫീസിൽ വന്ന് ചെയ്താൽ മതിയോ അതോ ഓൺലൈൻ ആയിട്ടാണ് നമ്മളിപ്പോൾ അപേക്ഷ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തരുമോ അതും പോരാതെ എന്തൊക്കെ ഞാൻ കൊണ്ട് വരണമെന്നും അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാമോ പിന്നെ നമ്മൾ ഈ ചേഞ്ചസ് കൊടുത്ത് കഴിയുമ്പഴേ എത്ര ദിവസം കൊണ്ടൊക്കെ ആയി വരുന്നും കൂടി ഒന്ന് പറയണം കാരണം എനിക്കൊന്ന് ആ ആവശ്യം ഉണ്ടായിരുന്നു ഇന്നപോലെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അത് എന്നത്തേന് ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തിരിച്ച് കിട്ടുമോന്ന് കൂടെ ഒന്ന് പറയണമായിരുന്നു കാരണം എനിക്ക് അത് കിട്ടിയിട്ട് വേണം എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അഡ്രസ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി തരണം ഏ എത്രയും പെട്ടെന്ന് ചെയ്ത് തന്ന് കഴിഞ്ഞാൽ അത്ര ഉപകാരമാണ് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഈ ക്രമം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് തരുമായിരുന്നെങ്കിൽ ഞാൻ നാളെ തന്നെ വന്ന് ചെയ്യാമായിരുന്നു ആ ഓക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നതിന് നന്ദി ഓക്കെ ടാങ്ക് യൂ